ആ നിങ്ങളെ വിളിക്കാൻ നിങ്ങൾ ഇവിടുത്തെ സ്റ്റുഡൻറിൻ്റെ അമ്മയല്ലേ അശ്വിൻ്റെ ആ ഓനിവിടെ ആകെ കച്ചറയാണല്ലോ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളെ ശല്യം ചെയ്യുവാണെന്നൊക്കെയാണ് ഓൻറെ ക്ലാസ് ടീച്ചർ പറയുന്നത്

എന്താണ് ഓൻ അങ്ങനെ ആ എന്നാൽ പിന്നെ എന്താണ് ക്ലാസ്സിൽ ഇങ്ങനെ എന്ന് വർത്തമാനം പറയുക അപ്പുറത്തെ കുട്ടികളുടെ മുടി പിടിച്ച് വലിക്കുക ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി എത്ര വട്ടം പറയുന്നുണ്ട് നിങ്ങളുടെ കുട്ടീനോട് ആ ആ ഓൻ ഇവിടെ ഉണ്ട് ഓനെ എന്തിനാണ് ഇപ്പം മാറ്റുന്നത് നിങ്ങളുടെ കുട്ടിയാണ് ക്ലാസ് എടുക്കുമ്പോൾ ബാക്കിൽ നിന്ന് അവൻ്റെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികളെ മുടി പിടിച്ച് വലിക്കുക പേപ്പർ എടുത്തിങ്ങനെ തലയിലേക്ക് എറിയുക ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി അതാണ് കുട്ടികളും ടീച്ചർമാരും ഒക്കെ പറയുന്നത് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല പരീക്ഷയ്ക്ക് മാർക്ക് ഇല്ല

ആ ഇനി അവൻ ഇവിടെ കച്ചറ ആക്കിയാൽ നിങ്ങൾ വരേണ്ടി വരും ആ അത് ഒന്ന് കൂടിയും